കുട്ടികൾക്ക് പഠിപ്പുര എന്ന ഒരു ഭാഗം പത്രത്തിൻറെ അകത്ത് വരുന്നുണ്ട് മനോരമ പത്രത്തിൽ പഠിപ്പുര പിന്നേ ഗണിതങ്ങൾ പരീക്ഷ ഒക്കെ ആവുമ്പോഴത്തേക്കും ഗണിതങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും നല്ലെ ഒരു ഇതാണ് പിന്നെ പഠിപ്പുര ആണെന്നുണ്ടെങ്കിലേ പിള്ളേർക്ക് വരുമ്പോഴത്തേനും അവർ നല്ലൊരു രീതിയിലാണ് ആ പഠിപ്പുര എല്ലാ നോക്കി എല്ലാം പഠിച്ച് പോവുന്നത് പിന്നെ ഗണിതം എന്ന് പറഞ്ഞാൽ ഗണിത ഈ പരീക്ഷകളൊക്കെ വരുമ്പോഴത്തേക്കും ഗണിതങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് നല്ല ഒരു ഇതാണ് അപ്പം കുട്ടികൾക്കായി ഇതൊക്കെ പത്രങ്ങളിൽ വരുന്നതേ അവർക്ക് തന്നെ വലിയ ഒരു ഈ നേട്ടമാണ് പിന്നെ കുട്ടികൾക്കായിട്ട് നാലാമത്തെ പേജ് കുട്ടികൾക്കായിട്ട് ഒരു ഇത് ഇതായിട്ടുണ്ട് അതൊക്കെ കുട്ടികൾക്ക് ഒത്തിരി അനുഗ്രഹം ആണ് കുട്ടികൾക്ക് പഠിക്കാനും പാഠ്യപദ്ധതികൾ മനസ്സിലാക്കാനും പത്രങ്ങൾ വായിക്കാനും അവർക്ക് ഉത്സാഹം തോന്നും പത്രം നോക്കി ഇരുന്ന് അവർ പിന്നെ പത്രം അക്ഷരങ്ങൾ അറിയാൻ മേലാത്ത പിള്ളേർ പോലും പത്രങ്ങൾ വരുന്നതും നോക്കി ഇരുന്ന് ആ പത്രത്തിലെ എല്ലാ ആശയങ്ങളും കുറച്ച് കുറച്ച് വായിച്ച് അവരാ ന്യൂസുകളെല്ലാം വായിച്ച് അറിയുവാനും ഉള്ള താല്പര്യങ്ങൾ അവർക്ക് ഉണ്ടാകും ഈ പിള്ളേരുടെ പഠിപ്പുര അത് അത് അത് പോൽ കണക്ക് ഗണിതങ്ങളെന്ന് പറയുന്നത് അത് മാത്രമല്ല പിള്ളേർക്ക് ഒരു നല്ല ഒരു പ്രചോദനം കൂടെ ആകും പത്രം വായിക്കാനായിട്ടാണെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് പത്രം വായിച്ച് അവർ അവരുടെ അറിവ് വർദ്ധിക്കാനും പത്രങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ അറിവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം അവരെ ആ കുട്ടികൾക്ക് വായിക്കാൻ പോലും അറിയാൻ മേലാത്തവർ ആയിരിക്കും അന്നേരം ആവുമ്പോൾ ഓരോ പടങ്ങളൊക്കെ നോക്കിയാണെങ്കിലും പയ്യെ പയ്യെ ആണെന്ന് പറഞ്ഞാലും വായിച്ച് പഠിക്കാനും അവർക്ക് ഒരു പ്രചോദനമാണ് കുട്ടികൾക്ക് പത്രം ഇന്നത്തെ കുട്ടികൾക്ക് മ ഈ മലയാളം എന്ന് പറയുന്നത് മിക്ക ശ്ര മിക്ക കുട്ടികൾക്കും മലയാളം എന്ന് പറയുന്നത് വായിക്കാനോ എഴുതാനോ അറിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് കൂടുതലും ഇംഗ്ലീഷ് ആണ് അവർ കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് സ്കൂളുകളിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അങ്ങനെ ഉള്ള സ്കൂളുകളാണ് കൂടുതലും ഉള്ളത് മലയാളം എന്ന് പറയുന്നത് കുറച്ച് മലയാളം മീഡിയം സ്കൂളുകൾ മാത്രമേ ഇന്ന് ഉള്ളൂ അപ്പം ആ മലയാളം മീഡിയം സ്കൂളുകളിൽ മലയാളം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലതായിട്ട് മലയാളം വായിക്കാനും അറിയാനും പറ്റുന്നുണ്ട് അത് പോൽ കണക്ക് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞങ്ങൾക്ക് ഇന്ന് മലയാളം വായിക്കാനും എഴുതാനും അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ മലയാളം എന്ന് പറയുന്ന പാഠ്യപദ്ധതി യിലൂടെ പിന്നേ എല്ലാം അവർക്ക് കൂടുതലും ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെയെങ്കിലും പത്രം ഒന്ന് നോക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ് പത്രത്തിനോടൊപ്പം പഠിപ്പുര വരുന്നത് നോക്കി അവർ എല്ലാ ആഴ്ച്ചകളിൽ ഇരിക്കും ആഴ്ച്ചയിൽ ഒന്നാണ് പഠിപ്പുരയിലെ വാരാന്ത്യം എന്നും പറഞ്ഞുകൊണ്ട് ഞ പിന്നെ ആ അതൊക്കെ ഉണ്ടാവുന്നത് പഠിപ്പുരയിലൂടെയാണ് അപ്പം അവർ അങ്ങനെ പ പത്രങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കും